ഹലോ ഇത് ഫിഷ് ഹബ്ബ് അല്ലേ ചെമ്മീനുണ്ടോ കിലോയിക്ക് എന്നാ ഒരു കിലോയ്ക്ക് ഒരു കിലോക്ക് എത്രയായിരുന്നു ആ ഓക്കെ ഞണ്ടോ ഓക്കെ അപ്പം എനിക്ക് അത് രണ്ടും ക്ലീൻ ആക്കി ഓരോ കിലോ ആയിട്ട് സെപ്രേയ്റ്റ് ആയിട്ട് പാക്ക് ചെയ്യണം തരണം അല്ല നിങ്ങൾക്ക് ഡെലിവറി ഉണ്ടോ ഹോം ഡെലിവറി ആ ഓക്കെ അപ്പോൾ നിങ്ങളേത് ഇതിനകത്താണ് ഓക്കേ സാല്മണ് ഉണ്ടോ ഇരിപ്പുണ്ടോ ആ ഹാ ഹാ ഇല് റേറ്റ് എത്രയാവും അതിന് ഓക്കെ ചോദിച്ചു എന്നേ ഉള്ളൂ അല്ലാ അത് ചോദിച്ചു എന്നേ ഉള്ളൂ അപ്പം വേറെ ഏതൊക്കെ മീനുണ്ട് അവിടെ ഓ ഓക്കേ ആ ഇത് ഇന്നത്തേത് തന്നെയാണോ അതോ ഫ്രഷ് തന്നെയാണോ എല്ലാരും ഫ്രഷ് എന്ന് പറയും കാരണം പിന്നെ വീട്ടിൽ കൊണ്ട് ചെല്ലുമ്പഴത്തേനും ഖേദിക്കും അത് ഇല്ലല്ലോ ആ അത് ഓക്കെ സമ്മതിച്ചു അല്ല പറഞ്ഞു എന്നേ ഒള്ളൂ ചിലയിടത്തെക്കെ ഞങ്ങൾക്ക് ഓള്റെഡി ഈവന് നമ്മുടെ ദേ ഈ നാട്ടില് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊന്നും അങ്ങനെ നല്ല മീന് കിട്ടാറില്ല അതുകൊണ്ടാണ് ചോദിച്ചത് ആ ഓക്കെ ആ ആ ഹാ ഹാ ഓരോ ഓരോ കിലോ വീതം സെപ്രേയ്റ്റ് ആക്കി സെപ്രേയ്റ്റ് ആയിട്ട് പാക്ക് ചെയ്യണേ ആ ക്ലീന് ക്ലീനും കൂടെ ചെയ്ത് തരണം കേട്ടോ അത് അതിന് സെപ്രേയ്റ്റ് പൈസയാണോ അതോ നിങ്ങൾക്ക് ഗൂഗിള് പേയുണ്ടോ അതോ അതോ ഞാൻ വരുമ്പം ക്യാഷ് തന്നാൽ മതിയോ ആ ഓ ആ ആ ഓക്കെ അത് മതി കുഴപ്പം ഇല്ല വേറെ മീനൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് ഓള്റെഡി ഞാന് ഇതിൽത്തന്നെ അല്ലേ എന്നാൽ ഇപ്പം ഇനിയും ഫോണ് വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്കീ വീട്ടിൽ കൊണ്ട് തരുന്നതിന് തരുമല്ലോ ആ ഓക്കെ അത് അറിയാന് വേണ്ടിയായിരുന്നെ ആ അല്ല ചെമ്മീൻ ഏത് വലുതാണോ ചെറുതാണോ ഇരിക്കുന്നേ അവിടെ പലതരം ഉണ്ടല്ലോ ഞണ്ട് എവിടുന്നാ വരുന്നത് കൊല്ലത്തുനിന്നാണോ നിങ്ങൾ കൊല്ലത്തുനിന്ന് മാത്രം എടുക്കാറുള്ളോ അതോ ആ അത് ആലപ്പുഴ അല്ലെ ആലപ്പുഴയിൽനിന്ന് അപ്പം അത് വരുന്നത് ആ ഞങ്ങൾക്ക് ഒരു ഹോട്ടൽ ഉണ്ട് അപ്പം നമ്പ ഹോട്ടലിലേക്ക് ആയിരുന്നു വേണ്ടത് അപ്പം ഞങ്ങൾക്ക് ഇപ്പം ചിലപ്പം ഡെയിലി വേണ്ടി വരുവെ അതാണ് ചോദിച്ചത് ആ ആ ഇത് ഞങ്ങൾക്ക് എല്ലാം ഫ്രഷ് തന്നെയാ വേണ്ടത് ഞങ്ങളുടെ കസ്റ്റമേസിന് കൊടുക്കാനുള്ളതാണെ അപ്പം അതുകൊണ്ടാണെ കാരണം കസ്റ്റമര് കംപ്ലൈന്റ് പറയാൻ പാടില്ല അതിന് വേണ്ടിയാണ് ഞങ്ങൾ ചോദിക്കുന്നത് കാരണം വെച്ചാൽ നിങ്ങളുടെ കടയെ കുറിച്ച് ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു കടയിൽനിന്ന് ഒര് കംപ്ലൈന്റ് കിട്ടിയായിരുന്നെ അപ്പം അതുകൊണ്ടാ ഞാന് ചോദിച്ചത് അപ്പം അതുകൊണ്ടാ ഫ്രഷ് തന്നെ വേണമല്ലോ ആ ഓ ആ ആ ഓക്കെ അപ്പം രണ്ടും ഓരോ കിലോ അത് ഞണ്ടും ഞാണ്ടൊരു കിലോ ചെമ്മീനും ഒരു കിലോ ഓക്കെ ഓക്കെ ഞാന് ലൊക്കേഷന് അയച്ചിട്ടേക്കാം ഓക്കെ ഓ ഓക്കെ ഓക്കെ